നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിഷ്ടപ്പെടുന്നൊരു കാലഘട്ടംന്ന് പറയണത് എപ്പോഴാണ് എൻ്റെ കാലഘട്ടംന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ പറ്റിയുള്ള ഒരു കാലഘട്ടത്തെയാണ് എനിക്ക് എപ്പോഴും എന്റെ ഓർമ്മകളെ കൊണ്ടു പോകുന്നത് കാരണം ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നതും എന്റെ അമ്മ വളരെയധികം പട്ടിണി കിടന്നാണ് ഞങ്ങളെ വളർത്തി കൊണ്ട് വന്നത് ആ അതിന് ഒരു പ്രതിഫലമായിട്ട് എനിക്ക് എൻറ്റമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയത് എൻറ്റമ്മേടെ മരണ സമയം മൂന്നാല് വർഷം എൻറ്റെയമ്മ കിടപ്പിലായിരുന്നു മലം കിടപ്പായിരുന്നു അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റാണ്ട് കുറച്ച് നാൾ കിടന്നു ആ സമയങ്ങളിൽ എല്ലാം ഞാൻ എൻറ്റമ്മയെ എൻ്റെ വീട്ടിൽ കൊണ്ടന്ന് എൻ്റെ അടുത്ത് നിർത്തി ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടോണം ഞാൻ ശുശ്രൂഷിക്കുകയും വളരെയധികം സന്തോഷമായിട്ട് ഞാനെല്ലാ കാര്യങ്ങളും ചെയ്യതിരുന്ന് എൻറ്റമ്മ മലം കിടപ്പായിരുന്നു അമ്മേടെ മലോം മൂത്രോം എടുക്കാനൊക്കെ ഞാൻ വളരെ ഞാൻ സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്തിട്ടുണ്ട് ദൈവത്തിൻറ്റെ മുമ്പിൽ എനിക്കെന്നും തെളിഞ്ഞ് നിന്ന് പറയാം എൻ്റെമ്മയെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ നോക്കിയിട്ടുള്ളതെന്ന് ഇപ്പളും എനിക്ക് എൻറ്റമ്മേടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പളും എനിക്ക് സങ്കടങ്ങൾ മാത്രോള്ളു കാരണം അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതിന് ഒരു കൂലി കൊടുക്കാൻ പറ്റിയല്ലോ ദൈവത്തിൻറ്റെ മുമ്പിൽ ഞാൻ ഇന്ന് അതിൽ വളരെ കൃതജ്ഞത ദൈവത്തിൻറ്റെ മുമ്പിൽ ഞാൻ വിചാരിക്കുന്നു അതുപോലെ എല്ലാവരും തന്നെ അവനവൻറ്റെ സ്വന്തം മാതാപിതാക്കളെ ശരിക്കും നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളു പണ്ടത്തെ ഇപ്പോൾ എല്ലാവരും അവരവരുടെ സുഖങ്ങൾ മാത്രം മക്കൾ നോക്കാറുള്ളു മാതാപിതാക്കളുടെ സുഖങ്ങൾ ആരും നോക്കാറില്ല

മാതാപിതാക്കളെ നിങ്ങളൊരിക്കലും കൈ വെടിയരുത് എത്ര പണത്തിൻറ്റെ പുറത്ത് ഇരുന്നാലും അതിലും വലിയൊരു ത്യാഗം ഇല്ല മാതാപിതാക്കളെ നോക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഭൂമിയിൽ ഒരു ത്യാഗമായിട്ട് നമ്മൾ കാണേണ്ടത് ദൈവത്തിൻറ്റെ മുമ്പിൽ നമുക്ക് എന്നും സ്നേഹത്തോടെ ദൈവം നമ്മളെ നോക്കണേ നമ്മൾ നമ്മളെ മാതാപിതാക്കളെ നല്ലോണം നോക്കണം എനിക്ക് അത്രേയക്കേ ഞാൻ എൻറ്റമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറക്കം ഉറക്കം തന്നെ ഞാൻ രണ്ടുമൂന്ന് മാസങ്ങളോളം എൻറ്റമ്മയ്ക്ക് വേണ്ടീട്ട് ഉറക്കം ഒളിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കാരണം എൻറ്റമ്മ ഉറങ്ങൂലായിരുന്നു ഏത് സമയവും എന്നെ വിളിച്ച് വെള്ളം ചോദിച്ചു കൊണ്ടിരിക്കായിരുന്നു അന്നൊന്നും ഞാൻ അമ്മയെ ഒരു വഴക്ക് പറയാണ്ട് എണീറ്റാരുന്നു ഹോം നേഴ്സ്ണ്ടായിരുന്നു അവർ കിടന്ന് ഉറങ്ങിയാലും ഞാൻ അവർ പോലും എന്നെ എപ്പോഴും സ്തുതിച്ചു പറയാറുണ്ട് ഇത് പോലെ ഒരു മോളെ കിട്ടിയത് അമ്മേടെ ഭാഗ്യം എന്ന് ഇനീം ഏതൊരു ജന്മം ഉണ്ടായാലും ആ അമ്മ തന്നെ എനിക്ക് അമ്മ ആയിട്ട് ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അങ്ങനെ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു